ഗുഡ് ആഫ്റ്റർനൂൺ കസ്റ്റമർ സ്വിഗ്ഗി കസ്റ്റമർ കെയറല്ലെ ഓക്കെ എന്റെ പേര് ആതിര അങ്കമാലി മങ്ങാട്ടുകരയിൽ നിന്ന് വിളിയ്ക്കുകയാണ് ഞാനൊരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഞാനൊരു അൽഫാം ഓർഡറ് ചെയ്തിരുന്നു സ്വിഗ്ഗിയിൽ നിന്ന് അപ്പോൾ അതിന് കുറച്ച് അഡീഷ്ണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏഡ്ഡ് ചെയ്തിരുന്നു അപ്പം അതവർ കറക്റ്റായിട്ട് ഇൻഫോമായോ എന്നെനിക്ക് ചെറിയൊരു അവർ മറന്നു പോവുകയാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും കോണ്ടാക്ട് നമ്പരോ ഏപ്പൊ അങ്ങനെയെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞാൻ അഡ്ഡിഷണലായിട്ട് ഒരു സാലഡ് പറഞ്ഞിരുന്നു എക്സ്ട്രാ ഒരു സാലഡ് രണ്ട് പേക്കറ്റ് കുബ്ബൂസ്സ് പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ഞാൻ മയോണൈസ്സ് പറഞ്ഞിരുന്നു രണ്ട് പാക്കറ്റ്

ഞാൻ ഏകദേശമൊരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇപ്പോൾ എത്താറായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എനിക്കറിയില്ല അതെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എനിക്കതൊന്ന് റിമമ്പര ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഒന്ന് സൗകര്യമായിരുന്നു അല്ലെങ്കിൽപ്പിന്നെ എനിയിപ്പോൾ വന്നിട്ട് പിന്നേയും ഞങ്ങൾ ഓർഡർ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചൂംകൂടി ഒന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽപ്പിന്നെ അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽപ്പിന്നെ ഞങ്ങൾക്കതിന്റെ ബുദ്ധിമുട്ടില്ലല്ലൊ

അത് കുഴപ്പമില്ല എനിക്ക് എന്റെ കോണ്ടാക്ട് നമ്പറിലിട്ട് തന്നാൽ മതിയെന്നാൽ ആ നമ്പറുണ്ടെങ്കിൽ ആ നമ്പറൊന്ന് ഇട്ടു തന്നു കഴിഞ്ഞാൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യാമല്ലൊ ആണോ ആ ഒക്കെ ഒക്കെ അങ്ങനെയാണെങ്കിൽ എന്റെ വാട്ട്സപ്പിലിട്ടാൽ മതി ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം ഞാൻ ഓക്കെ താങ്ക് യു ഒക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്